കോഴി വളര്ത്തലെന്നു പറയുന്നത് വളരെ നല്ലൊരു വരുമാനദായക ജോലി വരുമാനദായകപരമായൊരു ജോലി തന്നെയാണ് അത് പക്ഷെ നമ്മളത് അതുപോലെതന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താല് മതിയാകും ഇപ്പം കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് നാളേക്ക് ഇപ്പം പക്ഷിപ്പനി ലോകത്തിലിപ്പം പടര്ന്ന് പിടിച്ചിരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു അപ്പോള് എല്ലാവര്ക്കും മനുഷ്യര്ക്ക് വളരേയധികം ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രോഗമായിരുന്നു എല്ലാവര്ക്കും ഇപ്പം മുട്ട വാങ്ങിച്ച് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെത്തന്നെ ആ ഭക്ഷണം കോഴി വളര്ത്തൽ ചിലപ്പം അത് അതില് നിന് ആ ഒരു പക്ഷിപ്പനി ബാധിച്ചതിനെത്തുടര്ന്ന് ധാരാളം കോഴികളെത്തന്നെ നമ്മള് കൊന്നൊടുക്കി അപ്പോള് അത് കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചാൽ ചില സമയത്തിപ്പം കോഴികള്ക്കുണ്ടാവുന്ന അസുഖങ്ങള് അത് ഡോക്ടറെ കണ്ട് അതിന് കറക്റ്റ് രീതിയിലുള്ള മരുന്ന് വാങ്ങിച്ച് കൊടുക്കുകയും അതിന്റെ വാക്സിനേഷനെന്താണെന്ന് വെച്ചാലത് ചെയ്താല് ഒരു പരിധിവരെയൊക്കെ നമ്മൾക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാന് കഴിയും അതുപോലെത്തന്നെ കൂടും പരിസരവുമൊക്കെ നല്ല കാര്യമായ രീതിയിൽ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തുകഴിഞ്ഞെന്നാൽ നമുക്ക് കോഴി വളര്ത്തല് വളരെ നല്ല രീതിയില്ത്തന്നെ കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നതാണ്